ബത്തേരി നഗരസഭയെ സംബന്ധിച്ചെടുത്തോളം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഓരോ മഴക്കാലത്തും ബത്തേരിയിലെ ചുള്ളിയോട് പ്രദേശത്ത് ചുള്ളിയോട് പോകുന്ന വഴി പ്രദേശത്ത് ആ പ്രദേശത്ത് നിന്നുള്ള വെള്ളം ഒഴുകി വരുകയും അത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുകയും ആ പ്രദേശത്ത് ഉള്ള കടകളിൽ എല്ലാം വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിക്കാൻ ഇടയായത് ശാശ്വതമായ ഒരു പരിഹാരം ബത്തേരി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആ പ്രശ്നത്തിന് അനുകൂലം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആ പ്രദേശത്തിന്റെ ആ പ്രദേശത്തിലേക്ക് ഒഴുകി വരുന്ന വെള്ളം കൃത്യമായി ഒഴുകി പോകുന്നതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ബത്തേരി നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്